ഇപ്പോൾ ലോക്ക് ഡൗൺ കാലഘട്ടങ്ങളിൽ കൂടുതലായിട്ടും മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങൾ കൂടി വന്ന് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെറുതെയിരിക്കുന്ന സമയമാകുമ്പോൾ പോലും നമ്മളെന്തു ചെയ്യുക മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പിള്ളേർക്ക് ഓൺലൈൻ ലോക്ക് ഡൗൺ കാല ഘട്ടങ്ങളിൽ ഓൺലൈൻ ക്ലാസുകളാണ് കൂടുതലായിട്ടും നടന്ന് വന്നു കൊണ്ടിരുന്നത് ഓഫ് ലൈൻ ക്ലാസുകൾ ഇല്ലായിരുന്നു കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് പിള്ളേർക്ക് പഠിക്കേണ്ട ഒരാവശ്യവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൂടുതലായിട്ടും നമ്മൾ ഓൺലൈൻ വഴിയാണ് പഠിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും വേണ്ടി വന്നിരുന്ന ഒരു എന്താ പറയുക സാധനമാണ് നമുക്ക് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടികൾ പോലും ഇപ്പോൾ ഇല്ല ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും നമ്മൾ മൊബൈൽ ഫോൺ കൊടുക്കും കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കേണ്ടൊരു ആവശ്യവും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കൊടുക്കും പക്ഷെ അവർ പഠിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും അവരെ ശ്രദ്ധിക്കാനോ കാര്യങ്ങൾക്കൊന്നും പോകാറില്ല അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ലാപ് ടോപ്പ് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ നല്ല രീതിയിലുള്ള കൂടി വന്നിട്ടുണ്ട് കാരണമെന്താ വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ഡൗൺ കാല കാലങ്ങളിൽ സമയം പോകാൻ വേറെ മാർഗ്ഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക വീട്ടിലിരുന്നിട്ടാണ് കൂടുതലായിട്ടും എല്ലാവരും ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നിരുന്നത് കാരണം ഓൺലൈൻ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്ത് ജോലിയാണെങ്കിലും ഇപ്പോൾ സർക്കാർ ഓഫീസിലുള്ള പലതരം ജോലികളിൽ എല്ലാ ജോലികളും വീട്ടിലിരുന്നിട്ടാണ് ചെയ്ത് വന്നു കൊണ്ടിരുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തൊരു ഇതാണ് ജോലിയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാരണമെന്താ വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള സമയം വീട്ടുകാരോട് സ്പെൻഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കുമായിരുന്നു